ഹലോ ഇത് ഊബറല്ലേ എൻ്റെ പേര് ചന്ദ്രൻ ഞാൻ വിളിച്ചത് എന്നു പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒരു ട്രിപ്പ് ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്തായിരുന്നു ഞാൻ ഡ്രൈവറിനു ഒരു ആയിരം രൂപ അഡ്വാൻസായിട്ട് കുറച്ച് ക്യാഷും കൊടുക്കെ കൊടുക്കുകയുണ്ടായി അപ്പം എനിക്ക് റീഫണ്ടിനു വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ആ ഈ ഓഡർ ക്യാൻസൽ ചെയ്യണമെന്നു വെച്ചാൽ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യമെന്നു വെച്ചാൽ എൻ്റെ വീട്ടിലൊരു മരണമുണ്ടായി അപ്പം ഞാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അപ്പം തന്നെ തിരികെ ഞാൻ എൻ്റെ നാട്ടിലേക്കു പോകുകയും ചെയ്തു അപ്പോൾ ഞാനൊരായിരം രൂപ ഈ ഡ്രൈവറിനു കൊടുക്കുകയുണ്ടായി അഡ്വാൻസായിട്ട് അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ അധികം ക്യാഷും ഇല്ല അപ്പം എനിക്ക് ഈ ക്യാഷ് എത്രയും വേഗം റീഫണ്ട് ചെയ്തു തരണം അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ചില ഈ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഈ ഓഡർ ക്യാൻസൽ ചെയ്തത് എൻ്റെ വീട്ടിൽ ഒരു മരണം നടന്നു അതുകൊണ്ടാണ് ക്യാൻസലായത് അപ്പം ഈ കാരണ വിവരണങ്ങൾ നിങ്ങൾ കസ്റ്റമർ കെയറിനെ ഞാൻ വിളിച്ചറിയിക്കുകയാണ് എനിക്കെൻ്റെ ക്യാഷ് എത്രയും പെട്ടെന്നു നിങ്ങൾ തിരിച്ചു തരണം റീഫണ്ട് ചെയ്യണം ഇത് ഞാൻ ക്യാൻസൽ ചെയ്ത ഓഡറാണ് ഇത് സമയ ബന്ധിതമായിട്ടെനിക്കത് കിട്ടിയേ പറ്റു ഇതിപ്പം ഒരുപാട് നേരമായി ഞാൻ ഈ അഡ്വാൻസ് തുക കൊടുത്തിട്ടെനിക്ക് റീഫണ്ടായിട്ടില്ല എനിക്കിത് എങ്ങനെയായാലും നിങ്ങൾ റീഫണ്ട് ചെയ്തു തന്നേ പറ്റു എൻ്റെ സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾ ഞാൻ കൊടുത്ത അഡ്വാൻസ് തുക തുകയും എൻ്റെ ഞാനോഡർ ചെയ്ത അല്ലാത്ത ക്യാഷും നിങ്ങളെനിക്ക് റീഫണ്ട് ചെയ്തു തരേണ്ടതാണ് ഇതു പറയാനാണ് ഊബറിലേക്കു ഞാൻ വിളിച്ചത് അപ്പം എന്നു കിട്ടുമെന്ന് എനിക്ക് നിങ്ങളൊന്നൊരു കൺഫോർമേഷൻ ഡേറ്റ് പറഞ്ഞാൽ എനിക്കൊരുപകാരമായിരുന്നു അത് അപ്പോൾ ഓക്കേ എന്നാൽ